ഞങ്ങളുടെ ഗ്രാമത്തിലെ ആളുകൾ വായ്പ് എടുക്കുന്ന സാധാരണയായി വായ്പ എടുക്കുന്നവരാണ് സാധാരണക്കാർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വായ്പ എടുത്തേ സ പറ്റുകയുള്ളൂ അതു കൊണ്ട് ആവശ്യങ്ങൾക്കു വായ്പ എടുക്കുന്നത് അത്യാവശങ്ങൾക്ക് വായ്പ എടുക്കുന്നത് ആവശ്യമായതു കൊണ്ടു തന്നെ അവർ ബാങ്കിനെ ബാങ്കിനെ സമീപിക്കുന്നവരാണ് കൂടുതലും ഗ്രാമീൺ ബാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ആളുക അങ്ങിനെയൊക്കെയാണ് വായ്പകൾ കൂടുതലായിട്ടും എടുക്കാറ് സെൻട്രൽ ബാങ്ക് ബാങ്കുകളിൽ എന്നൊക്കെ അവർക്ക് ആളുകൾ കൂടി ഇത്ര ആളുകൾ കൂടി ലോൺ എടുക്കുന്ന ഇസാഫ് പോലെയുള്ള സ്ഥാപനങ്ങളുമുണ്ട് ആ സ്ഥാപനകളിലെടുത്ത ഭയങ്കര പലിശയാണ് അടച്ചു കൊണ്ടിരിക്കുന്നത് ബാങ്കിൽ നിന്നൊക്കെ ആണെങ്കിലും കുറഞ്ഞ രീതിയിൽ പലിശ എടുക്കും നമുക്ക് കുടുംബശ്രീ വഴിയൊക്കെ വായ്പ എടുക്കുകയാണെങ്കിൽ ഇത്ര അംഗങ്ങൾ കൂടി ലക്ഷങ്ങൾ വരെ നമുക്കു വായ്പ കിട്ടും ആ വായ്പ മാസാമാസം തിരിച്ചടക്കാം കുറഞ്ഞ പലിശ നിരക്കിൽ തന്നെ പിന്നെ അവർ വായ്പ എടുക്കുന്നത് എങ്ങനെയാണ് ആ വായ്പ എടുക്കുന്നത് വെച്ചാൽ ഒന്നു കൃഷിക്കു വേണ്ടി എടുക്കാറുണ്ട് കൃഷിക്കു വേണ്ടി എടുത്ത കൃഷി മുന്നോട്ടു നീങ്ങണമെങ്കിൽ അതിനും ആവശ്യമായ വളങ്ങളും കാര്യങ്ങളും ഇട്ടു കൊടുക്കണം അപ്പം അവർ അതിനനുസരിച്ച് വായ്പ എടുക്കും അല്ലാതെ പിന്നെ പശുവിനെ വാങ്ങാനായിട്ട് പശുവിനെ പോലെയുള്ള മൃഗങ്ങൾ ആട് പശു മുതലായവ അങ്ങനെ ഫാം നടത്തുന്നവരൊക്കെ വായ്പ എടുത്താണിതു മുന്നോട്ട് കൊണ്ടു വരുന്നത് വായ്പ എടുക്കും അപ്പം അങ്ങനെ ഇവർ സമീപിക്കുന്നതും സെൻട്രൽ ബാങ്ക് ബാങ്കുകളെ ആണ് അപ്പം അതു കൊണ്ടു തന്നെ ഈ മുത്തൂറ്റ് ഫിനാ ഫൈനാൻസുകൾ മുത്തൂറ്റ് പിന്നെ ഇസാഫ് ഡോറ അങ്ങനെ കുറേ കുറേയ സ്ഥാപനങ്ങളുണ്ടിപ്പം നമുക്ക് വായ്പ കൊടുക്കാനായിട്ട് ചില ഇടത്തു നിന്നൊക്കെ ഭയങ്കര അധികം വായ്പ എടുക്കുമ്പം ഭയങ്കര ഇതും പലിശ നമ്മൾ തിരിച്ചടക്കേണ്ടി വരുന്നുണ്ട് വായ്പ എടുക്കുന്നതിൻ്റെ ദോഷ ഫലങ്ങളെന്നു പറഞ്ഞാൽ ആൾക്കാർക്ക് ഈ പലിശ അടക്കാതെയും ക്കാൻ പറ്റുന്നില്ല പലിശ അടക്കാതെ വരുമ്പം നമുക്ക് ദോഷ ഫലങ്ങൾ ധാരാളമായിട്ട് ഉണ്ട് പൈസ ഒരു മാസം അടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ പലിശയോടു കൂടി തന്നെ അവർക്ക് ഈ ലോണിൻ്റെ തിരിച്ചടവ് നടത്തേണ്ടി വരുന്നു കോവിഡ് പോലെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ കോവിഡ് വന്ന സമയത്ത് ആർക്കും മിക്കവർക്കും തന്നെ പൈസ അടക്കാൻ പറ്റത്തിലായിരുന്നു ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് പലിശയോടു കൂടി തിരിച്ചടക്കേണ്ടി വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് ലോണിൻ്റെ വായ്പ തിരിച്ചടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലോൺ തീരുന്ന സമയത്ത് നമുക്ക് പൈസ പലിശ പലിശയായിട്ടും അങ്ങനെ പൈസകൾ കിട്ടും നമ്മുടെ മുടങ്ങി പോയ നമുക്ക് ഇങ്ങനത്തെ പൈസ ഒന്നും ഇങ്ങോട്ട് കിട്ടാറില്ല പിന്നെ പൈസ അടക്കാൻ ആൾക്കാരില്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പൈസ അടക്കാതെ കടബാധ്യതകൾ ഒത്തിരി ഉള്ളവർക്കൊക്കെ ഈ ലോണെടുത്ത പൈസ തിരിച്ചടയ്ക്കാതെ വരുമ്പം ഈ ആത്മഹത്യ പോലെയുള്ള പ്രവണതകളിലോട്ടൊക്കെ ആളുകൾ നീങ്ങി കൊണ്ടിരിക്കും അവരെ കൊണ്ടടക്കാൻ പറ്റാത്തതാണ് അപ്പോൾ നമ്മളെ കൊണ്ട് ഒ അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം ആളുകൾ ലോണെടുക്കാൻ ശ്രമിക്കാൻ അല്ലാതെ ഒരുപാട് പൈസ നമ്മൾ ലോണെടുക്കുകയും തിരിച്ചടക്കാതെയൊക്കെ അതു നമ്മുടെ കുടുംബത്തു തന്നെ ദോഷകരമായി ബാധിക്കും പിന്നെ വീട്ടിലെ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആശുപത്രി കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം കൂടാകും നമ്മുടെ കയ്യിൽ തങ്ങി നിർത്താൻ പറ്റുകയില്ല ഈ ലോൺ എടുക്കുന്നതു മൂലം ഗ്രാമ പ്രദേശങ്ങളിലൊക്കെ ആളുകൾ വായ്പ എടുക്കുന്ന സാധാരണമാണ് എന്നു പറയുമ്പോൾ അവർക്കു വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നും എക്സ്ട്രാ വരുന്നില്ല അതു കൊണ്ടു തന്നെ അവരൊരുപാട് ലോണെടുക്കാൻ അവരുടെ കാര്യങ്ങൾ നിർവ്വഹിക്കുന്നത് അപ്പം ഗ്രാമങ്ങൾ ഗ്രാമീൺ ബാങ്ക് അവരുടെ കീഴിൽ വന്നു ലോൺ കൊടുക്കാനുള്ള അവരുടെ പട്ടയം കാണിച്ച് ലോൺ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതു കൊണ്ടു തന്നെ ലോൺ ആവശ്യമാണ് അവർ എല്ലാവർക്കും അതിനൊക്കെ അവർ ബാങ്കുകളെ സമീപിക്കുകയും ചെയ്യുന്നുണ്ട്